അങ്ങനെ അത്ര ലോങ്ങ് ആയിട്ട് സൈക്കിളിൽ പോകാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കാരണം നമ്മൾ നമ്മുടെ സാഹചര്യം കൂടി നോക്കണമല്ലോ വീട്ടില് വീട് ആഗ്രഹമുണ്ട് ആഗ്രഹിക്കാമല്ലോ എല്ലാവർക്കും വേണേൽ പറയാം എനിക്ക് വേണമെങ്കിൽ ഓൾ ഇന്ത്യ ട്രിപ്പ് എനിക്ക് സൈക്കിളിൽ പോകാം എന്ന് ആഗ്രഹിക്കാം പക്ഷേ

ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യരുമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൈക്കിൾ ചവിട്ടുന്നത് സൈക്കിളിംഗ് ഭയങ്കര ഇഷ്ടമാണ് കാരണം നമ്മുടെ ഹെൽത്തിനും നല്ലതാണ് നമ്മുടെ ബോഡിക്കും നല്ലതാണ് നമ്മള് ഈ ജിമ്മിൽ ഒക്കെ പോകുന്നതിനേക്കാളും നമ്മള് സൈക്കിളിങ്ങ് ചവിട്ടുന്നത് ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ ഒക്കെ ഉണ്ട് പക്ഷേ അത്ര ലോങ്ങ് ആയിട്ട് ഒന്നും എന്നെ വീട്ടിൽ നിന്ന് വിടില്ല എങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ അടുത്തുള്ള കുറച്ച് ജില്ലകൾ ഉണ്ടല്ലോ ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് മുഴുവൻ കവർ ചെയ്യാൻ പറ്റും എനിക്ക് വേണമെങ്കില് പിന്നെ മലപ്പുറത്ത് പോകാൻ പറ്റും വയനാട് പോകാൻ പറ്റും വയനാട് സൈക്കിളിങ് ഒക്കെ ചുരം ചവിട്ടി കേറുന്നതൊക്കെ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു പോകാൻ പറ്റും സൈക്കിളിങ് ആകുമ്പോൾ കുഴപ്പമില്ല കുറച്ചൊക്കെ മടുപ്പ് ഒക്കെ ഉണ്ടാവും പക്ഷേ ഒരു ത്രില്ലിംഗ് ആയിരിക്കും ഒരു ഓരോ ജില്ല വേണമെങ്കിൽ നമുക്ക് കവർ ചെയ്യാം എനിക്ക് അങ്ങനെ ആഗ്രഹങ്ങളേ ഉള്ളൂ മലപ്പുറം അതേപോലെത്തന്നെ നമ്മുടെ ഇവിടെ കോഴിക്കോട് തന്നെ കോഴിക്കോട് എല്ലാ സ്ഥലത്തും ഒന്ന് കറങ്ങുക അതും സൈക്കിളിൽ തന്നെ അതേപോലെത്തന്നെ വയനാട്ടിൽ പോവുക പിന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളോക്കെ ഒന്ന് സൈക്കിളിങ്ങില് നല്ലതായിരിക്കും ആരെങ്കിലും ഒരു ഗ്രൂപ്പ് ആയിട്ട് സൈക്ലിങ് ചവിട്ടുന്നവരുടെ കൂടെ ആവുമ്പോൾ നമുക്ക് മടിപ്പില്ലാതെ ഒരു കമ്പനി അടിച്ചു പോകാൻ പറ്റും ഒറ്റയ്ക്ക് നമുക്ക് ലോങ്ങ് ഒക്കെ പോവുക ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഞാൻ നമ്മുടെ ഇവിടെ ഒത്തിരി സൈക്കിളിങ് ചവിട്ടി ഞാൻ എവിടെയും പോയിട്ടില്ല സ്കൂളിൽ പണ്ട് പോകുമ്പോൾ അല്ലാതെ അങ്ങനെ പോയിട്ടില്ല പക്ഷേ ആഗ്രഹം ഉണ്ട് ആഗ്ര അത്ര വലിയ ആഗ്രഹങ്ങൾ ഒന്നുമില്ല ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ